ഏതൊക്കെയാണ് വേണ്ടത്

ആ ആ

പിന്നെതാണ് വേണ്ടത് ആ വീട്ടുന്നുണ്ടാക്കുന്നത് ആണ്

ആ ഉണ്ണിയപ്പം മിക്സൽ അരക്കലാണ് അരി അരക്കും പിന്നെ അതിൽ ഇത്തിരി ചോറും കൂട്ടും പി പിന്നെ അതിൽ തന്നെ ഞാൻ ശർക്കര ഉരുക്കി ഒഴിക്കും പിന്നൊരു നുള്ള് അപ്പം സോഡ ഇടും പിന്നെ മൈസൂര് പഴം രണ്ടെണ്ണം ഇടും എന്നിട്ട് ഒന്നാകെ ഒന്നിച്ച് ആട്ടി വെക്കും അങ്ങനെ ഉണ്ണിയപ്പം പിന്നെ അതിൽ തേങ്ങ കൊത്തിയിടും നെയ്യിൽ വറുത്തിട്ട് പിന്നെ ജീരകം ഇടും ഏലക്കായ പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടാണ് അങ്ങനെയാണ് ഉണ്ടാക്കൽ നെയ്യപ്പം പിന്നെ പൊടിച്ചിട്ടുണ്ടാക്കലുണ്ട് പൊടിച്ചിട്ട് കുറച്ച് തരിയോട് കൂടി പൊടിച്ചിട്ട് അതിൽ ശർക്കര ഉരുക്കി ഒഴിക്കും ഉരുക്കി ഒഴിച്ചിട്ട് പിന്നെ നല്ലോണം എളക്കീട്ട് നല്ലോണം പൊന്തണമെങ്കിൽ ഒരു ഒരു സ്പൂണ് മൈദപ്പൊടി ഇട്ടാലും നല്ല നല്ലോണം പൊന്തും ഒരിത്തിരി അപ്പം സോഡ ഇടുക എന്നിട്ട് നല്ലോണം കുറുന്നനെ കലക്കുക നല്ലോണം കുറുന്നനെ ചൂടോടെ അപ്പം ഒഴിക്കണം പൊടീൽ ശർക്കര ഉരുക്കിയത് നല്ലോണം എളക്കീട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറീട്ട് പിന്നെ മിക്സീൽ ഞാൻ ഒന്നും കൂടിം കൂട്ടി വെച്ചത് ഒന്നും കൂടി അടിക്കും അപ്പം നല്ല ഉണ്ടാവും അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ അത്ര തന്നെ വെള്ളം ഒഴിക്കണ്ട വെള്ളം കുറച്ച് കുറവാക്കീട്ട് അതിനും ഏലക്കായ പൊടിച്ചിടുക പിന്നെ വേറെന്താണ് വട്ട ആ വട്ടയപ്പം ഉണ്ടാക്കൽ ഉണ്ണിയപ്പോം മതിയോ

ആ ആ എന്നാൽ ശരി ആ ആ എന്നാൽ ശരി